നൃത്തം ആളുകളെ കൂട്ടി ചേർക്കുകയും ഒരു സമൂഹമെന്ന അപബോധത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു പല മേഖലകളുണ്ട് ഇത് നമ്മൾ ഇപ്പോളൊരു ഒരു സ്കൂളിൽ ഒരു സമൂഹ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്ന കുട്ടികൾ ഒരു ഗ്രൂപ്പാവുന്നു ഒരു സമൂഹമാകുന്നു ആ അവരെ നൃത്തം എവിടെ അവതരിപ്പിക്കുന്നുവോ എന്നതിനെ അനുസരിച്ചാണ് അത് ആളുകളെ എങ്ങനെ ഒന്നാക്കി തീർക്കുന്നു എന്നതിലേക്ക് വരുന്നത് സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ആനസ് ഒരു മാനസിക ആനന്ദമല്ല നമ്മുടെ വീടുകളിലക്കെ ഒരു കല്യാണ പാർട്ടിയോ അങ്ങനെ എന്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ ബന്ധുക്കളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് എൻ്റർടെയ്ൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക അവസ്ഥയും വ്യത്യാസമാണ് അപ്പോൾ പെട്ടെന്ന് നൃത്തത്തെ കുറിച്ച് ആളുകൾ ഒന്നു ചേർക്കുന്നെന്ന് പറഞ്ഞാൽ അത് എവിടെ അവതരിപ്പിക്കപ്പെടുന്നു ഏത് അവസരത്തിൽ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് നമുക്കിതിന് ഉത്തരം പറയാൻ സാധിക്കുന്നത്